നമ്മുടെ വര മെച്ചപ്പെടുത്താൻ സഹായിച്ച ചില വിദ്യകളെന്ന് പറഞ്ഞാൽ നിർദേശങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കുന്ന അദ്ധ്യാപകര് തന്നെയാണ് അദ്ധ്യാപകരും വീട്ടുകാരും തന്നെയാണ് നമ്മുടെ ചിത്രം വരച്ചു ചെറിയ ചെറിയ ചിത്രങ്ങളൊക്കെ വരച്ചു നമ്മളാദ്യം അദ്ധ്യാപകർക്കും വീട്ടിലൊക്കെ കാണിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ടൊണ്ട് എന്നൊക്കെ പറഞ്ഞു നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ആളുകളാണ് എന്നെ ഞങ്ങ എൻ്റെ വര മെച്ചപ്പെടുത്താന് സഹായിച്ചത് പിന്നെ ആരിൽ നിന്നാണ് ലഭിച്ചെന്ന് ചോദിച്ചാൽ അധ്യാപകര് വീട്ടിൽ നിന്നൊക്കെയാണ് പുതിയ വിദ്യകൾ പഠിക്കാന് എന്താണ് പിന്തുടരുന്നത് എന്നാണു ഓൺലൈന് ഓൺലൈനിനെ തന്നെയാണ് ആ ആശ്രയിക്കുന്നത് ഓൺലൈനെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഫോണിലൂടെ തന്നെ ഒരുപാട് ചിത്രങ്ങളാണെൽ തന്നെ വരക്കുന്നതു വരെ യൂറ്റ്യുബിലൂടെ കാണാൻ പറ്റും യൂറ്റ്യുബിൻ്റെ സഹായത്തോടെ ഞാനങ്ങനെ ഒരുപാട് വരയ്ക്കാനും പിന്നെ വരക്കുന്ന സാധനങ്ങള് സ്കെച്ചുകളാണെങ്കില് പെന്നുകളാണെങ്കില് പെൻസിലുകളൊക്കെ വാങ്ങാനൊക്കെ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട് അങ്ങനെ ഓൺലൈനില് മേടിച്ചിട്ടൊക്കെ ഉണ്ട് നല്ല പ്രോഡക്ട് പോലുള്ള നല്ല സാധനങ്ങള് തന്നെയാണ് ഓൺലൈനിലുള്ളത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വച്ചിട്ട് ഞാനങ്ങനെ ചെയ്ത് നോക്കീട്ടൊക്കെയുണ്ട് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട്